ഒരാധുനിക കലാകാരനായി വള വളരാനാണ് എനിക്കിഷ്ടം എനിക്കേറ്റവും ഇഷ്ടമുള്ളത് കലയാണ് ഒര് ഫുട് ഫുട്ബാളാണ് ഫുട്ബാള് കുഞ്ഞുകാലം മുതൽക്കേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ ഓരോ ഗ്രൗണ്ടിലൊക്കെ പോകുമ്പോൾ ഫുട്ബോള് കൊച്ചു കാ കുഞ്ഞുകാലം മുതൽക്കേ അച്ഛന്റെ കൂടെ കൈ പിടിച്ച് ഗ്രൗണ്ടിൽ പോകുമ്പോഴും ഞാൻ ഫുട്ബാൾ കിക്ക് കി ചെയ്യുവായിരുന്നു വളർന്ന് വരുന്നതിന് അനുസരിച്ച് എന്റെ ഫുട്ബോളിനോടുള്ള ഭ്രമം കൂടുകയും മെസ്സിയെ നെപ്പോലെ മറ്റു രാജ്യങ്ങളിൽ പോകാനും മറ്റു രാജ്യങ്ങൾ കാണാനും അവിടെ പോയി ഫുട്ബോൾ ഫുട്ബോൾ ടീമിന്റെ കൂടെപ്പോയി പങ്കെടുക്കുവാനും വിജയം കണ്ടെത്തുവാനും വിജയ് വിജയ് വിജയിച്ച് തിരിച്ച് വരാനും ഭയങ്കര ആഗ്രഹവായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവിടെയൊന്നും എത്തിച്ചേർന്നില്ല എങ്കിൽപ്പോലും ഇപ്പോഴും എനിക്ക് ഫുട്ബോൾ വളരെ പ്രിയം തന്നെയാണ് എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ കിട്ടുന്ന സമയങ്ങൾലെല്ലാം പണ്ട് ഗ്രൗണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ടർഫ് എന്ന രീതിയിൽ പല സ്ഥലങ്ങളിൽ കേ കേട്ടിട്ടുണ്ട് ആ ടർഫിൽ പോയാണ് ഇപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്നത് കിട്ടുന്ന സാഹചര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുകയും ചെയ്യുന്നുണ്ട്